ഞാനൊരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് രണ്ടു നില വീട് വയ്ക്കണം പറഞ്ഞു ആ വീട് വെച്ച് ആ നേട്ടവും ഉണ്ടാക്കി പിന്നെ എൻ്റെ മകനെ പഠിപ്പിച്ച് നല്ല ഒരു ജോലി എടുക്കാൻ ഞാൻ ശ്രമിച്ചു ആ ജോലിയും ആ നേട്ടവും ഞാൻ നേടിയിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് നല്ല ഒരു ഹോട്ടൽ വച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചു ആ നേട്ടവും ഞാൻ നേടിയിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും നല്ല ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു ആ നേട്ടവും ഞാൻ നേടിയിട്ടുണ്ട് എൻ്റെ എനിക്ക് ഒരു വണ്ടി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു അതും ഞാൻ നേടിയിട്ടുണ്ട് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് എല്ലാവരും രണ്ട് മൂന്ന് സ്ത്രീകൾക്ക് ഞങ്ങള് തൊഴില് കൊടുക്കുകയും ചെയ്തിട്ട് തൊഴില് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ ഒരു ഇത് എന്താണെന്ന് വെച്ച് വെച്ചാൽ എൻ്റെ നേട്ടം എന്ന് പറയുന്നത് രണ്ടു രണ്ടുനില വീടായിരുന്നു എൻ്റെ ആദ്യത്തെ സ്വപ്നം പിന്നീടാണ് ബാക്കിയെല്ലാം ആ നേട്ടം ഞാൻ നേടിക്കഴിയും ചെയ്തു എനിക്ക് അതില് ഒരുപാട് സന്തോഷവുമുണ്ട് നല്ല ആ നേട്ടം നേടിയതിൽ എന്നും ഞാൻ അതിനെ ഓർത്ത് ഓർത്ത് ഇരിക്കുകയും ആണ്